ഹലോ ആരാണ് സംസാരിക്കുന്നത് ആ ആ ആ ആ എന്താപ്പാ ആ എന്തുപറ്റി അതെയോ ആ ആ അതെയതെ ആ അപ്പോൾ അപ്പോൾ നമുക്ക് ആ ആ ആ അതേയതേയതേയതേ അപ്പോൾ നമുക്ക് അത്യാവശ്യം മാത്രുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഗ്രൂപ്പുകളൊന്നു ഡിലീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹാങ്ങാണെങ്കിൽ ളിതൊന്ന് മൊബൈലിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നിങ്ങൾ രാവിലെയൊന്ന് പത്തുമണിക്കൊന്നു വരൂ നമ്മൾ ഓപ്പണാക്കുന്നുണ്ട് അപ്പോൾ കടകൾ ആ സമയത്തൊന്നു വരാൻ പറ്റുവോ ഒന്നു നോക്കാം നമുക്കത് ഡിസ്പ്ലേ പോയതോ വേറെന്തെലും കംപ്ലൈൻറ്റൊന്നൊന്നു നോക്കാം ഒരു ടൂ തൗസൻറിനു ചെറുതൊന്നു തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കംപ്ലൈൻറ് വരുവാണെങ്കിൽ ഇത് റിപ്പയർ ചെയ്യുന്ന സമയം വേണ്ടൂ നമ്മളിത് റിപ്പയർ ചെയ്തുതരുവോളൊന്നു രണ്ടു ടൂ തൗസൻറ് റുപ്പീസ് തരുവാണെങ്കിൽ നമുക്ക് രണ്ടു ദിവസത്തേക്ക് തരാം ഇതിൻ്റെ കംപ്ലൈൻറ്റ് അറിയണല്ലോ ഫോണിൻ്റെ അല്ല രണ്ടു ദിവസത്തേക്കങ്ങനെയല്ല ഇത് അങ്ങനെ സെക്കൻഡ് അങ്ങനിണ്ട്ന്ന് ഞാൻ പറഞ്ഞത് ഫോണിണ്ട്ന്ന് നിങ്ങൾക്കത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടീട്ട് നിങ്ങളൊരുപാട് വർക്ക് ചെയ്യുന്ന ആളല്ലേ

വിലക്കെടുക്കാം ആ ഇപ്പം ഞാൻ വൊഡാഫോണ് അതേപോലെത്തന്നെ ഐഡിയ പിന്ന ബി എസ് എൻ എൽ ആ നല്ല നല്ല കമ്പനീസെല്ലാമുണ്ട് ഇപ്പോൾ വലിയ വലിയ ക്വാളിറ്റിടതാകുമ്പോൾ വലിയ വലിയ വിലയെല്ലാം പറയണ്ടേ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഫോണ് പോരേ ആ സാംസങ്ങാ ആ ആ എന്നാൽ നിങ്ങളൊന്ന് എന്തായാലും നാളെ രാവിലെ പത്തുമണിക്കൊന്നു വരൂ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഒന്നുനോക്കാം ഒന്നുനോക്കാം നമുക്ക്ട്ടാ നമ്മൾ തന്നല്ലേ ആ ഓക്കെ താങ്ക് യൂ ബൈ